അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നാല് രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തിപ്പതിമൂന്ന് ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്